രാസവളങ്ങള് ഉപയോഗിക്കുന്നത് മണ്ണിനു നല്ലതല്ല മണ്ണ് വളം കുറയ്ക്കും പിന്നേ ആ മണ്ണില് വേറെ എന്തെങ്കിലും കൃഷി കൃഷി ഉപയോഗിക്കണെങ്കില് വേണ്ട രാസ വളം സൂക്ഷ്മജീവികള് നശിച്ചു പോവും അതുകൊണ്ട് മണ്ണിൻ്റെ എല്ലാ കുറേ നഷ്ടപ്പെടും

വേപ്പിൻ്റെ പിണ്ണാക്ക് പല പല കഷായങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് മണ്ണിനൊന്നും കേടില്ലാത്ത നല്ല നല്ലതാണ് മണ്ണിന് ഉപയോഗിക്കല് രാസവളമുള്ള ഭക്ഷണം നമ്മള് തിന്നുമ്പോള് നമ്മള്ക്ക് പല പലേ രോഗങ്ങളും ഉണ്ടാവാൻ കാരണമാവും